ഹലോ ആ മേഡം പറഞ്ഞോളൂ ഞാൻ ഹുണ്ടായ് ഐ ടെൻ കമ്പനി ഷോ റൂമിൽ നിന്നാണ് സംസാരിക്കുന്നത് പറഞ്ഞോളൂ ഹലോ കട്ടപ്പന കട്ടപ്പന ഷോ റൂം എം ജി എഫ് എം ജി എഫ് ഹുണ്ടായ് മേടം ഏതു വണ്ടിയായിരുന്നു എടുക്കാൻ അതെയല്ലേ സെൻ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനാണല്ലേ എക്സ്ചേഞ്ച് ചെയ്യാനാണോ അതോ എക്സ്ചേ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ ഇപ്പോൾ വണ്ടി ഇല്ല ആ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി നമുക്കുള്ളത് ഐ ടെൻ നാ നല്ല മോഡൽ വണ്ടികളുണ്ട് ഏതു മോഡലാണ് വേണ്ട പുതിയ മോഡൽ തന്നെയാണോ അതൊ പഴയ സെക്കൻ്റ് ഹാൻഡ് അതെ അല്ലേ ഇന്നോവ ഇന്നോവയ്ക്ക് ഒരു പത്തിനു മുകളിൽ റേറ്റ് ഉണ്ടാകും പത്ത് പതിനഞ്ചൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ റേറ്റ് അനുസരിച്ച് എൻ്റെ അഭിപ്രായം സെക്കൻ്റ് ഹാൻറ്റാണ് ഉദ്ദേശിച്ചത് അല്ലെ സെക്കൻ്റ് ഹാൻഡ് സെക്കൻ്റ് ഹാൻഡാണെങ്കിൽ നമുക്ക് മോഡൽ അനുസരിച്ച് വില പത്തിനു താഴെ ഒക്കെ വരാം മോഡൽ നമ്മൾ ഓരോ വർഷം കൂടുമ്പോൾ മോഡലെന്നു വെച്ചാൽ ഓരോ വർഷത്തിനനുസരിച്ചാണെ അപ്പോൾ രണ്ടായിരത്തി ആ ആ എഴ് രൂപയ്ക്കാണ് കൊടുത്തത് അതേല്ലെ എത്ര കിലോ മീറ്റർ ഓടിയായിരുന്നു നാല് അല്ലേ ആ ചിലപ്പോൾ നാലേ പത്ത് ആ അതെ അല്ലേ ആ അത്യാവശ്യം തന്നെ പവർ എഞ്ചിനും അങ്ങനെ എല്ലാ ഫ്യൂച്ചേഴ്സും ഉണ്ടായിരുന്നോ ഫുൾ ഫുൾ ഓപ്ഷൻ ആയിരുന്നോ അതോ ഫൈനാൻസ് ആയിരുന്നു അല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ വീണ്ടും ഇന്നോവ തന്നെയാണോ താല്പര്യം ഐ ടെൻ ഒന്നു മാറിയാലോ വണ്ടിയൊന്നു മാറി എടുത്താലോ ഐ ടെൻ കുഴപ്പമില്ലാതെ ഒരു വണ്ടിയാണ് ചിലപ്പോൾ ഐ ടെൻ ഉണ്ട് ഐ ട്വൻറ്റി രണ്ടു മോഡൽ ഉണ്ട് ഐ ട്വൻറ്റി ഐ ടെൻ ഇപ്പോൾ നല്ല മോഡൽ വണ്ടിയാണ് സ്പോർട്സ് അങ്ങനെയായിട്ട് മൂന്നാല് ഇപ്പോഴത്തെ റേഞ്ച് വരുന്നത് ഒരു ഓൺ റോഡ് ഇപ്പോൾ വരുന്നത് ടാക്സും എല്ലാം കൂടുതലാണല്ലോ ടാക്സും ഇൻഷുറൻസും എല്ലാം കൂടുതലായതു കൊണ്ട് ഒരു ഒൻപതിന് മുകളിൽ വരാൻ സാധ്യതയുണ്ട് മോളേ എനിക്കു എട്ടിന് ഏട്ടാണ് സ്റ്റാർട്ടിങ് വരാം സ്റ്റാർട്ടിങ് എട്ട് അല്ല ഇപ്പോൾ ഇല്ല ഒൻപത് ഒൻപതു ലക്ഷം മുപ്പത് വരികയില്ല ആ ആ അതെ അതെ ആ പെട്രോളാണ് കൂടുതലും വരുന്നത് വേരിയൻറ് പെട്രോൾ വേരിയൻറ് ആണ് വരുന്നത് മൈലേജ് നമുക്കൊരു പതിനഞ്ചൊക്കെ കിട്ടും പതിനെട്ടാണ് കമ്പനി പറയുന്നുണ്ട് പതിനഞ്ചിന് മുകളിൽ മൈലേജുണ്ട് പതിനാറ് സ്ഥലം എവിടെയാണ് പറഞ്ഞത് സ്ഥലം എവിടെയായിരുന്നു തോപ്രാംകുടിയല്ലേ ആ ഓക്കെ ഓക്കെ നമ്മുടെ നേരെ ആ എൻ്റെ സ്ഥലം മുരിക്കശ്ശേരിയാണെ മുരിക്കശ്ശേരി അടുത്ത ആ അടുത്തു തന്നെയാണ് ചിലപ്പോൾ കണ്ടാൽ അറിയുന്ന നമ്മൾ പരിചയമുള്ളവരായിരിക്കും അപ്പോൾ എന്തോ ആ ഞാൻ ജോ വർക്ക് ചെയ്യുകയാണ് വണ്ടിയുടെ സെയിൽസും അങ്ങനെ കാര്യങ്ങളൊക്കെയുണ്ടെ ഇങ്ങനെ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെ ഒരു സ്കൂളിലേ അപ്പോൾ വണ്ടിയുടെ സെയിൽസ് അങ്ങനെയുള്ള ട്രൂ വാല്യൂ ചെറിയ വണ്ടി സെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫീച്ചേർസ് വരുന്നത് ഐ ടെൻ ആണെങ്കിൽ നമുക്ക് വരുന്നത് പവർ വിൻഡോ ഫോർ നാല് ഡോർ പവർ വിൻഡോ വരും പിന്നെ സ്റ്റീരിയോ സ്റ്റീരിയോ സെറ്റുകളുണ്ട് പിന്നെ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഒക്കെയുണ്ട് ഡോർ ഇത് സ്റ്റീരിയോ ഉണ്ട് പിന്നെ എ സി എ സി വരുന്നുണ്ട് പിന്നെ അങ്ങനെ വേണ്ടുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് തന്നെ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് താല്പര്യമുള്ള മോഡലന്നായൊക്കെയെന്ന് ഫീച്ചേഴ്സും പവർ വിൻഡോ എല്ലാ വണ്ടികൾക്കും വരുന്നതാണ് പിന്നെ സ്റ്റീരിയോ വരും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വൈപ്പർ ഓട്ടോമാറ്റിക് റിയർ ഗ്ലാസുണ്ട് വിൻഡോ അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈറ്റ് ഫോഗ് എവിടെയാണ് ഡെൽഹിയിലോ ആ അവിടെയൊക്കെ ഡീസൽ വണ്ടികൾക്കൊരു ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട് ആ ഓടിക്കഴിഞ്ഞാൽ പിന്നെ അതു തന്നെ അതു തന്നെ അപ്പോൾ എനിക്ക് പ്രശ്നമെന്നു പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റീ റെജിസ്റ്റർ ചെയ്യണമല്ലോ അതു കൊണ്ട് നമ്മൾ അവിടെയുള്ള വണ്ടികളും പക്ഷേ ഇവിടെ നമ്മൾ അവിടെ പോയി നമ്മൾ കണ്ടു വണ്ടി നമ്മൾ ചെറിയ കണ്ടീഷനൊക്കെ നോക്കി ഓടിച്ച് നമ്മൾ തന്നെ പോയാൽ പറ്റുകയില്ല നമ്മൾ കൂടി ആരെങ്കിലും വണ്ടിയെപ്പറ്റി അറിയാവുന്നവർ പോയി ചെയ്താലെ നമുക്കത് കൃത്യമായിട്ട് വണ്ടിയെപ്പറ്റി കണ്ട കണ്ടീഷൻ അറിയാൻ പറ്റുകയുള്ളു അതിൻ്റെ മൈലേജ് അങ്ങനെയുള്ള കമ്പ്ലൈൻറ്റുണ്ടോ ടയർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ നോക്കണം അതിനു വണ്ടി ഓടി ഇൻഷുറൻസ് എല്ലാം കറക്റ്റാണോ തേർഡ് പാർട്ടി ചില ഈ നമ്മുടെ ഓണർഷിപ്പ് എന്നു വെച്ചാൽ ഒരാൾ തന്നെ മാറി മാറി ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻറ്റകത്തെ ഈ വണ്ടിക്ക് കമ്പ്ലൈൻറ്റൊക്കെ വരാമേ സിംഗിൾ ഓണർഷിപ്പ് അതെ അല്ലേ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ചു കൂടി അറിയാവുന്ന ആൾക്കാരൊക്കെയാണെ വിശ്വാസമാണ് വണ്ടി മാത്രം നമ്മൾ നമ്മുടെ കൈയ്യിൽ കിട്ടിക്കഴിഞ്ഞാലത് ആ അതെ അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ നമുക്ക്

അതെ അല്ലെ നമുക്ക് കുഴപ്പമില്ല അത്യാവശ്യം മൈലേജ് ഉള്ള കുഴപ്പമില്ല നമുക്ക് സെക്കൻ്റ് ഹാൻഡ് ആണെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനഞ്ചിന് മുകളിലേക്കുള്ള വണ്ടികളായിരിക്കും ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ഉള്ള വണ്ടികളായിരിക്കും എപ്പോഴും നല്ലത് രണ്ടായിരത്തി ഒരു അത്യാവശ്യം അത്യാവശ്യം ഓടാതെ അധികം കിലോ മീറ്റർ ഓടാത്തതെ കണ്ടീഷനൊക്കെ കറക്റ്റായിരുന്നു തന്നെ ഇൻഷുറൻസ് ടയർ പേപ്പറെല്ലാം കറക്റ്റീവ് ആയിരിക്കണം ആ അതാണ് പറഞ്ഞത് നമ്മൾ നോക്കിയാൽ വണ്ടി മാത്രം നമ്മൾ കറക്റ്റ് പിന്നെ ഒരു പിന്നെ ഈ ഒരു ടെസ്റ്റൊക്കെ വേണ്ട ഒരു ഒരു ക്യാമറ അങ്ങനെ ഒരു പുതിയൊരു ഇതുണ്ട് ഈ സ്കാനിങ് ഉണ്ട് സ്കാനിങ് സ്കാനിങ്ങെന്നു വെച്ചാൽ നമ്മൾ അത്യാവശ്യം മെയിൻ വണ്ടിക്ക് പത്ത് ഇരുപത്തഞ്ച് സ്കാനിങ് ഒരു അത്യാവശ്യം മെയിൻ കണ്ടീഷൻസ് എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു അങ്ങനെ ഒരു ടെസ്റ്റിങ് ഉണ്ടിവിടെ മെയിൻ ഫങ്ഷൻസെല്ലാം നമുക്കറിയാൻ പറ്റും കൂളൻ്റ് കൂളൻ്റ് ലെവൽ ബ്രേക്ക് ഇതിൻ്റെ ബ്രേക്ക് പാഡ് ബ്രേക്ക് ഫ്ലൂയിഡ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ വണ്ടിയുടെ എഞ്ചിൻ കണ്ടീഷൻ ഇങ്ങനെ എത്രയായി എത്ര കിലോ മീറ്ററായി ഇങ്ങനെ എത്ര കിലോ മീറ്റർ മൈലേജ് കിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ അപ്പോൾ വണ്ടി എങ്ങനെ സെക്കൻ്റ് ഹാൻഡാണോ പുതിയ വണ്ടിയാണെങ്കിൽ നമുക്കിത്ര റെയ്ഞ്ച് വരും പഴയ വണ്ടികളൊക്കെ ആകുമ്പോൾ മോഡൽ അനുസരിച്ച് അഞ്ച് അഞ്ചിനു താഴെ അഞ്ചിനു മുകളിൽ പിന്നെ തന്നെയാണ് എല്ലാം പോകുക അഞ്ച് അഞ്ചിനു താഴെ പോകാം താല്പര്യമുണ്ടെ നമുക്ക് സംസാരിക്കാം അല്ലെ വണ്ടി കാണുമോ വീട്ടിൽ വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിൽ അതെ അല്ലേ അതെ അല്ലേ എന്ത് ചെയ്യാനാണ് അപ്പം കുഴപ്പമില്ല അതേല്ലേ അതേല്ലേ അതെയൊ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ അതെ അല്ലേ ആ അതെയോ ഓ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ആ അതെ അതെ അതെ തോപ്രാങ്കുടിയിൽ ഇടയ്ക്ക് വരുന്നയാണ് ഞാൻ കട്ടപ്പന ആ റൂട്ടൊക്കെ പോകുന്നതാണേ ആ ഓക്കെ ഓക്കെ കട ആ അപ്പോൾ കട എനിക്ക് മനസ്സിലായി കട മനസ്സിലായി ആ കവലയിലോട്ട് പോകേണ്ട കടയല്ലേ ആ ഓക്കെ ഓക്കെ ആ ആ ജോസ് ഹൈഡ്രോളിക് സെൻറ്റർ ചേച്ചി ബ്യൂട്ടി പാർലർ നടത്തുന്നു ഓക്കെ ഓക്കെ ഓക്കെ വണ്ടി നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം വണ്ടി ഒന്ന് രണ്ടു മൂന്ന് മോഡലുകൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു ഇരുപത് മോഡൽ ഇരുപത്തി രണ്ട് മോഡൽ പഴയ വണ്ടിയാണെങ്കിൽ പുതിയ വണ്ടി ആണെങ്കിൽ നമുക്ക് നമുക്ക് ഷോ റൂമിൽ നിന്ന് നമുക്ക് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും ആ പുതിയ വണ്ടി നമുക്ക് നമ്മൾ ഡയറക്റ്റ് സെയിൽ നമ്മൾ കമ്പനിയുടെ നമ്മൾ സുഹൃത്തുക്കൾ ഉണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് വണ്ടി സൈൻ ചെയ്യാൻ പറ്റുമേ അപ്പോൾ ഹുണ്ടായ് ഐ ടെൻ കോഴ എന്തോ ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം വിളിക്കുകയാണെങ്കിൽ ഞാൻ വണ്ടി എത്തിക്കുമല്ലോ ചെയ്യാം വണ്ടി നമുക്ക് മോഡൽ കൊണ്ടു വന്ന് ടെസ്റ്റ് ഡ്രൈവ് മോഡൽ ഒരു വണ്ടി കൊണ്ടു വരും ഒരു രണ്ടായിരത്തി ഇരുപത് മോഡൽ ഒരു വണ്ടിയുണ്ട് അത് എന്തോ ആ ഓക്കെ ഓക്കെ പൈസ ആയി വരണമല്ലേ ഓക്കെ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം ഞാനൊരു ദിവസം വിളിക്കാം കോൺടാക്ട് ചെയ്യാം ആയിക്കൊട്ടെ ഓക്കെ ഓക്കെ ആയിക്കൊട്ടെ